കേരളത്തിലെ യുവതലമുറ കൃഷിയിൽ നിന്ന് അകലാനുള്ള പ്രധാന കാരണം കൃഷിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനം വളരെക്കുറവാണ് ഒരു കൃഷി ചെയ്യുമ്പോൾ അതിൽ നിന്ന് വിളവെടുത്ത് ആ വിളവിന് ക്രിത്യമായ ഒരു മാർക്കറ്റിങ്ങ് അതിൽ നിന്നുള്ള വരുമാനം പൈസ കാര്യങ്ങൾ എല്ലാം ക്രിത്യമായിട്ട് ഒരു കൃഷിക്കാരന് കിട്ടുന്നില്ല അത് ഇടനിലക്കാർക്കാണ് അത് കൂടുതൽ വരുമാനവും കാര്യവും പോകുന്നത് ഈ കൃഷി ചെയ്ത് നട്ടു വളർത്തി ഉണ്ടാക്കുന്ന ഈ കൃഷിക്കാരന് ആ ഒരു വിളവെടുപ്പ് കഴിഞ്ഞ് അത് കൊണ്ടുപോയിക്കൊടുക്കുമ്പോൾ അതിന് തുച്ഛമായ വിലയാണ് കിട്ടണത് ഏഹ് ഇത് ഈ ഇടനിലക്കാരായിട്ടുള്ള ഈ ബിസിനസ്സുകാരായിട്ടുള്ളവർ ക്കൊക്കെയാണ് ഇതിൻ്റെ പ്രധാന വരുമാനവും കാര്യവും കിട്ടണത് പിന്നെയൊരു സ്റ്റാൻ്റേർഡ് കുറവുണ്ട് കൃഷി ചെയ്യുമ്പം മണ്ണിലിറങ്ങണം ചളിമേൽ മേല് ചളിയാവും നല്ല വൃത്തിയുള്ള വസ്ത്രമൊന്നും ധരിച്ച് കൃഷി ചെയ്യാൻ കഴിയില്ല ഒരു ദിവസമേ വൃത്തിയുള്ള വസ്ത്രം ഉണ്ടാവുള്ളു പിറ്റേന്നേക്ക് ആ വസ്ത്രമൊക്കെ കറയായി ചെളിയായി ആകെ ഒരു വൃത്തിയില്ലാതെ ഒരു ഭംഗിയില്ലാതെ അങ്ങനെ ഉള്ളൊരു ഇതാവും സ്റ്റാൻ്റേർഡ് കുറവുണ്ടാവും മറ്റു ജോലികളെപ്പോലെയല്ല വെയിൽ കൊള്ളേണ്ടി വരും മഴ കൊള്ളേണ്ടി വരും ഏഹ് അപ്പോൾ നമ്മളെ ഗ്ലാമറ് നഷ്ടപ്പെടും അപ്പോൾ കൃഷിക്ക് കൃഷി ചെയ്യുന്ന കൃഷിക്കാരനും കാണാൻ വലിയ ഭംഗിയും കോലമൊന്നും ഉണ്ടാവില്ല വലിയ ടിപ്പിലുള്ള നടത്തവും കാര്യങ്ങളും നടക്കില്ല ഇതൊക്കെത്തന്നെയാണ് യുവതലമുറ ഇതിന് പിന്നോട്ട് നിൽക്കുന്നത്